കൊച്ചുകുട്ടികളിൽ വായനാശീലം വളർത്താന് നമ്മള് കൊച്ചുകുട്ടികളിപ്പോള് അക്ഷരം പഠിക്കാൻ തുടങ്ങി ഒരു മൂന്നു വയസ്സ് കഴിയമ്പോഴാണ് പക്ഷെ നമ്മളിപ്പോള് എല്ലാ കുട്ടികളും മലയാളം പോലും ചൊവ്വുന് വായിക്കാനില്ല ഇപ്പോള് പത്താം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്കുപോലും മലയാളം ചൊവ്വുന് വായിക്കാനറിയത്തില്ല കാരണം ഞാനും ക്ലാസ്സെടുക്കുമ്പോള് അറിയാം ഈ കുഞ്ഞുങ്ങള് പത്താം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികൾക്കാണേലും മലയാളം അക്ഷരത്തെറ്റില്ലാതെ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് എല്ലാവർക്കുമല്ല കുറച്ചു കുട്ടികൾക്കെങ്കിലും അറിയില്ല കാരണം പഴയ കാലത്തൊക്കെ അംഗൻവാടികളിലൊക്കെ വിട്ട് കുഞ്ഞുങ്ങളെ നല്ല തറവായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചാണ് വന്നത് വന്നത് എൻ്റെ കാലത്തുള്ള കുട്ടികളൊക്കെ നല്ല പോലെ മലയാള അക്ഷരങ്ങള് എഴുതാനും മലയാളം വാക്കുകൾ തെറ്റ് കൂടാതെയും എഴുതാൻ സാധിച്ചിരുന്നു അതിനു കുട്ടികളില് പിന്നെ വായനാശീലം വളർത്തുക എന്ന് പറഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങള്ക്ക് വായിക്കാനറിയത്തില്ല അല്ലേ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ആരെങ്കിലും ചെറിയ ചെറിയ പുസ്തകങ്ങളിപ്പോള് ഞങ്ങളുടെയൊക്കെ കാലത്തെന്നു പറഞ്ഞാല് ബാലരമ പൂമ്പാറ്റ പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുടെ മാസികകളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാമെന്ന് പറഞ്ഞാലും ആരേലും കൂട്ടുകാര് മേടിച്ചെങ്കിലും അത് നമ്മള് അവര് വായിച്ച് കഴിയുമ്പോള് ഉടനെ നമുക്ക് തരും നമ്മള് വായിച്ചുകഴിഞ്ഞ് വേറൊരു അങ്ങനെ കുട്ടികളെല്ലാം ഈ ചെറുകഥകളും ഈ ബാലരമ അതുപോലുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ മാസികകളൊക്കെ ധാരാളം വായിക്കുമായിരുന്നു അത് അക്ഷരങ്ങള് കൂടുതൽ അക്ഷരത്തോട് കുഞ്ഞുങ്ങള്ക്ക് കൂടുതലടുപ്പമുണ്ടാവാനും സാധിക്കും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങള്ക്ക് ഇപ്പോള് എല്ലാവരും മലയാളം മീഡിയത്തിൽ കുട്ടികളെ അധികം വിടാറില്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇംഗ്ലീഷ് പുഷ് പുസ്തകങ്ങൾ വായിക്കാത്ത വായിക്കാനുമറിയില്ല മലയാളം വായിക്കാൻ അതങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളെ വായിപ്പിക്കാന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങളെ ആദ്യംതൊട്ട് നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ചെറിയ ചെറിയ കഥകള് വായിച്ചവരെ കേള്പ്പിക്കും അവർക്ക് വായിക്കാനറിയത്തില്ല അന്നേരം നമ്മള് ചെറിയ ഇപ്പോഴുണ്ട് കളിക്കുടുക്കയുണ്ട് മൈ മിന്നാമിന്നി ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് അതൊക്കെ നമ്മള് മാതാപിതാക്കൾ വാങ്ങിച്ച് വായിച്ച് കുഞ്ഞുങ്ങളെ കേള്പ്പിക്കണം അവർക്കത് കേട്ട് ഒരു താല്പര്യം തോന്നുകയാണെങ്കില് പിന്നെയും പിന്നെയും വായിച്ച് വായിച്ച് കേള്ക്കാൻ താല്പര്യം തോന്നും അതുകഴിയുമ്പോഴവർക്ക് സ്വമേധയാ വായിക്കണമെന്ന് അപ്പോള് ഓരോ ക്ലാസ് കഴിയുംതോറും മലയാളത്തിനുള്ള അഭിരുചി കൂടും അവര് വായിക്കാൻ തന്നെ തുടങ്ങിക്കോളും ആദ്യം വേണ്ടത് നമ്മള് കൊച്ചുകുഞ്ഞുങ്ങളെ ഈ ടി വി ഈ മൊബൈലില് നിന്നൊന്ന് മാറ്റി നിർത്തി കൊച്ചു കുഞ്ഞുങ്ങളിപ്പോള് ശാഠ്യം പിടിക്കുമ്പോള് നമ്മള് മൊബൈലെടുത്തു കൊടുത്തു അവരതിനകത്ത് യൂ ട്യൂബൊക്കെ തന്നെ തുറന്നിപ്പോള് മൂന്നു വയസ്സുള്ള കുഞ്ഞുങ്ങള്ക്ക് വരെയും യൂ ട്യൂബൊക്കെ കണ്ട് എന്തൊക്കെ കാണണം അതെല്ലാം അവർക്ക് തന്നെ നോക്കാനറിയാം അതേസമയം ആ സമയത്ത് കുഞ്ഞുങ്ങളെ മൊബൈലില് നിന്നൊക്കെ മാറ്റി നിർത്തി ചെറിയ ചെറിയ പുസ്തകങ്ങൾ വാങ്ങിച്ച് അച്ഛനും അമ്മയും കൂടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടെ ഇരുത്തി അവർക്കീ കഥകളൊക്കെ പറഞ്ഞുകൊടുക്കുകയും അതിൻറ്റകത്തെ പടങ്ങള് കാണിക്കുക ആ പടം വരപ്പിക്കുക ഇതൊക്കെ ചെയ്യുവാണെങ്കില് കുട്ടികൾക്ക് കൂടുതൽ ഇൻറ്ററെസ്റ്റാവും കാരണം മൊബൈലീന്ന് മൊബൈലെന്ന് പറഞ്ഞാല് തന്നെ കൊച്ച് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ എല്ലാം വ്യാപിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതില്നിന്നൊക്കെ മാറ്റി നിർത്തി നമുക്ക് കുഞ്ഞുങ്ങളെ വായനയിലോട്ട് വളർത്താൻ കഴിയും കാരണം ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ നമ്മള് തന്നെ വായിച്ച് കൊടുക്കണം വായിച്ച് കൊടുത്തിട്ട് അവരെ അതിനകത്ത് പുസ്തകം വായിക്കാനും പുസ്തകത്തോടൊരടുപ്പം ഉണ്ടാക്കിത്തരണം അത് അതാണ് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് പിന്നെ ചെറിയ ചെറിയ പുസ്തകങ്ങള് കഥകള് പറഞ്ഞു കൊടുക്കുക പുസ്ത പിന്നെ പത്രത്തിലേ ചെറിയ ചെറിയ കഥകള് കാണും അതൊക്കെ ഈ കുഞ്ഞുങ്ങള്ക്ക് പറഞ്ഞുകൊടുക്കണം വായിക്കാൻ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങള് വായിക്കാൻ ഒരുമാതിരി നാല് ഒന്നാം ക്ലസ്സിലൊക്കെ ആവുമ്പോള് അവരെക്കൊണ്ട് പറഞ്ഞ് വായിപ്പിക്കണം ഓരോ അക്ഷരങ്ങള് പറഞ്ഞാണെങ്കിലും വായിപ്പിച്ച് നമ്മള് തന്നെ വായിപ്പിച്ചവർക്ക് പറഞ്ഞ് കൊടുക്കുമ്പോള് അവര് കുട്ടികളില് പുസ്തകത്തോടൊരു വായന കൊച്ചുകുട്ടികളില് വളർത്താന് സാധിക്കുമെന്നാണ് എൻറ്റൊരു അഭിപ്രായം അതിനു പിന്നെ നമ്മുടെ ഇപ്പോള് നമ്മുടെ നാടുകളിലെല്ലാം ലൈബ്രറികളുണ്ട് ആ ലൈബ്രറിയില് പോയി പുസ്തകമെടുക്കാം ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് കുഞ്ഞുങ്ങള്ക്ക് വായിച്ചു കൊടുക്കാം അങ്ങനെ വായനാ ശീലം നമ്മള് ഇപ്പം കുഞ്ഞിലെ ഇട്ടു കൊടുത്താല് പിന്നെ വരും അവര് വളരുംതോറും ആ വായനാ ശീലം കൂടെ വളർന്ന് വളർന്ന് അവര് നല്ലയൊരു വായനാ ശീലമുള്ളവരായി ഈ വായിക്കും തോറുമാണ് നമുക്ക് കൂടുതല് അറിവുകള് കിട്ടുന്നത് തന്നെ പിന്നെ സ്കൂളില് പോയെന്നു വെച്ചാല് സ്കൂളില് പോയി പഠിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയും വല്ല സയിൻസോ മാത്സോ ഒക്കെ കൊണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരു അറിവ് കിട്ടുന്നില്ല ഇതുപോലെ പത്രങ്ങളായാലും പുസ്തകങ്ങളായതും വായിച്ച് വായിച്ച് വായിച്ചെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങള്ക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു കൂടുതൽ അറിവുകൾ സാധിക്കുകയുള്ളു